ഇപ്പോൾ തന്നെയിരുന്നു ഫുഡ് കഴിക്കുന്നതിനേക്കാളും ഒന്നും കൂടെ എല്ലാവരും കൂടുതലായിട്ട് ആള്ക്കാര് എന്താണ് ഒന്നും കൂടെ ഇഷ്ടപ്പെടുക നമ്മള് കൂട്ടത്തില് ഇരുന്നു കഴിക്കുന്നതാണ് നമ്മൾ ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെയായാലും നമ്മുടെ ഫാമിലീന്റെ ഒപ്പം ഇരുന്നിട്ടാണ് നമ്മള് ഫുഡ് കഴിക്കുക ഇപ്പം നമ്മള് ഏതൊരു ഇതാണെലും ഇപ്പം നമ്മള് സ്കൂളില് പോകുന്ന ഒരു സിറ്റുവേഷനാണെങ്കിൽ തന്നെ നമ്മള് നമ്മുടെ ഫ്രണ്ട്സിന്റ്റൊപ്പം ആണ് ടൈമ് സ്പെൻഡ് ചെയ്യുക അതേപോലെ തന്നെ കൂട്ടത്തിലിരുന്നു ഫുഡ് കഴിക്കാന് എല്ലാവർക്കും പൊതുവേ ഇഷ്ടമാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അതേപോലെ തന്നെ നമ്മള് കഴിക്കുന്നതെന്താന്ന് തന്നെ ചിലപ്പം നമ്മള് ആലോചിക്കില്ല അങ്ങനെ നമ്മള് ഫുഡിനേക്കാളുപരി നമ്മള് ചുറ്റുമുള്ള ആള്ക്കാരിലേക്ക് ഒരു ശ്രദ്ധ നമ്മുടെ എത്തുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വീടുകളിലാണെങ്കിൽ തന്നെ ഒരു കുഞ്ഞു ഫംഗ്ഷൻ വരുവാണെങ്കിൽ ഇപ്പോൾ ഒരു ബേത്ത്ഡേയ്ക്കൊക്കെയാണെങ്കിൽ നമ്മളുണ്ട് ഫ്രണ്ട്സിനെ വിളിക്കും കസിന്സിനെ വിളിക്കും അങ്ങനെ കുറെ പരിപാടികള് നമ്മള് വിളിക്കാറുണ്ട് ബേത്ത്ഡേ മാത്രമല്ല നമ്മൾ അപ്പോൾ എന്തെന്ത് കുഞ്ഞുപരിപാടി ആണെങ്കിലും നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഇന്വോള്വല്ലാതെ ഒരു ഒരു എക്സ്ട്രായിട്ട് ഒരു സിറ്റുവേഷന് വരികയാണെങ്കിൽ നമ്മള് നമ്മുടെ ചുറ്റുള്ള ആള്ക്കാരെ ഒക്കെ വിളിക്കും ഇപ്പം അതുപോലെ തന്നെ നമ്മളിപ്പം ക്രിസ്മസായാലും എന്താ ഓണമായാലും വിഷുവായാലും നമ്മുടെ അടുത്തുള്ള വീട്ടുകാരെയൊക്കെ വിളിച്ച് നമ്മള് ഒന്നിച്ചിരുന്നു കഴിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ എന്തൊരു പരിപാടിയാണേലും നമ്മൾ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സുവായിട്ട് സംസാരിക്കും നമ്മള് എന്താ സംസാരിക്കുന്നത് അങ്ങനെയൊന്നുവല്ല നമ്മൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നമ്മള് നമ്മള് സ്ഥിരം ഫുഡ് കഴിക്കുന്ന ആൾക്കാരുടെ ഒപ്പം അല്ലാതെ പുറത്ത് നിന്ന് ആൾക്കാരായിട്ട് വന്ന് ഒരു വലിയൊരു പാര്ട്ടിയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകുവാണെങ്കിൽ നമ്മള് കുറെ കാലം കൂടിയായിരിക്കും അവരെയൊക്കെ കാണുക അപ്പോൾ നമ്മളവരോടു സംസാരിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാകും അതുപോലെ തന്നെ നമ്മള് ചിലപ്പോൾ നമ്മള് എന്താ കഴിക്കുന്നത് എന്ന് കൂടി ആലോചിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ ഫുഡ് അടിപൊളിയായിരിക്കും പക്ഷെ നമ്മള് ചിലപ്പോൾ സംസാരിക്കുന്നതിനിടയില് അതൊന്നും ശ്രദ്ധിക്കാന് തന്നെ ടൈമ് കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഫുഡ് ഇങ്ങനെ കുറെ പേരുടെ ഒപ്പം കഴിക്കുന്നത് ആസ്വദിക്കുന്നൊരാളാണ്